ഹലോ ഞാൻ ഗോവയിൽനിന്ന് ആണ് വരുന്നത് ആ അപ്പോൾ ഞാൻ ഗോവയിൽനിന്ന് കേരളത്തിലോട്ട് രണ്ടാഴ്ച ട്രിപ്പ് വരുന്നുണ്ട് ആ അപ്പോൾ എനിക്ക് നല്ല ടീ കിട്ടുന്ന സ്ഥലങ്ങളിൽ ഒക്കെ ഒന്ന് പോവണം ആ ആ നല്ല നാടൻ സാധനം ആ ഈ കണ്ണൻ ദേവൻ മലനിര അങ്ങനത്തെ സംഭവം ഒക്കെ ഇല്ലേ

ആ വയനാട് ഒരു അത്യാവശ്യം നല്ല കോട ഒക്കെ ആയിട്ട് ഉള്ള ഒരു നാച്ചുറൽ ഡിസ്ട്രിക്റ്റാണ് ആ ആ അങ്ങനത്തെ ആ അതിൻ്റെ അവിടെ തന്നെ താമസിക്കാൻ തന്നെ ഒരു നല്ല റിസോർട്ടും ബുക്ക് ചെയ്യണം ആ ആ അങ്ങനത്തെ അങ്ങനെത്തന്നെ ഒര് പൈസ എത്ര ആയാലും കുഴപ്പമില്ല നമ്മൾ അത് ഹാൻഡിൽ ചെയ്യും ആ ആ ആ ഞാൻ ഞാൻ ഇത് കാണുന്നുണ്ട് സുകു ഏട്ടൻ്റെ ചായക്കട

ആ ആ അപ്പോൾ നമ്മൾ ഈ വണ്ടി ഉണ്ടാവില്ലേ നമുക്ക് ആ ജീപ്പ് മോഡൽ ജീപ്പ് മോഡൽ ഈ ഓഫ്റോഡ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന കൂട്ട് ആ ആ എന്നാൽ അങ്ങനത്തെ ഒരു സെറ്റ് വൈബ് ആണ് എനിക്ക് വേണ്ടത് ഞങ്ങൾ ഒരു അഞ്ച് പേർ കാണും

കാടിൻ്റെ ഉള്ളിൽ അല്ല ആ കാടിൻ്റെ ഉള്ളിൽ അല്ല ഈ തേയില തോട്ടം നല്ല ഈ കോട ഒക്കെ വരുന്നത് ഇല്ലേ തണുപ്പ് ഒക്കെ ആയിട്ടുള്ള ആ അങ്ങനത്തെ ഒരു നാച്ചുറൽ ആണ് വേണ്ടത് ഞാൻ ഇപ്പോൾ നിൽക്ക് ഒരു മിനുട്ടേ ഒരു ഡിസംബറിൽ ഒക്കെ ആയിരിക്കും വരുക ആ ആ അപ്പോൾ ആ സമയത്ത് അപ്പോഴാണ് ലീവ് ഉള്ളത് ആ ആയിക്കോട്ടെ ഇല്ല ഞാൻ വന്നിട്ടില്ല ഞാൻ കേരളത്തിൽ ആദ്യമായിട്ട് കേരളത്തിൽ അല്ല ഞാൻ ജനിച്ചത് അപ്പോൾ ഞാൻ അത് പേരന്റ്സ് ഒക്കെ ഇവിടെ ഗോവയിലാണ്

ഇത് ചെറിയ ഹിസ്റ്ററി വേണമെന്ന് ഒന്നും ഇല്ല നല്ല ഒരു ചായ കിട്ടുന്ന അങ്ങനെ നല്ല സ്പോട്ട് ഒക്കെ മതി

ആ ഈ സുകു ഏട്ടൻ്റെ ചായക്കട ഫിക്സ് ആക്കിക്കോ ആ ആയിക്കോട്ടെ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ